ഹലോ കേക്ക് വേൾഡ് ബേക്കറി അല്ലേ ആ ഇരുപത്തഞ്ചിന് ഒരു ക്രിസ്മസ് പാർട്ടി ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നു അറേഞ്ച് ചെയ്യുന്നുണ്ട് അതിലേക്കൊരു കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി ആണ് ഞാൻ വിളിച്ചത് ആ ഏതൊക്കെ കേക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് വെൽവെറ്റ് ആണ് ഞങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ ടു കെ ജി വാങ്ങാനാണ് വിചാരിക്കുന്നത് അത് നിങ്ങൾ സ്ക്വയർ ഷേപ്പിൽ ചെയ്ത് തരാൻ പറ്റില്ലേ അതുപോലെ ഹോം ഡെലിവറി അവൈലബിൾ ആണോ ആ ഈവനിംഗ് ആണ് ഞങ്ങൾ സെലിബ്രേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അന്നേ ദിവസം ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയോടെ എത്തിക്കാൻ പറ്റില്ലേ ആ ഈ നമ്പറിൽ വാട്ട്സ്ആപ്പ് അവൈലബിൾ ആണോ ആ ഓക്കേ ഞാൻ ഷെയറ് ചെയ്യാം ഡീറ്റെയിൽസ് എല്ലാം അപ്പോൾ ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽമതി വരുന്ന ദിവസം അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലേ ആ ഓക്കേ